അതെ ആരാണ്

അയ്യേ മോനെ അങ്ങനെ അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ

മോനെ അത് വല്ല തമാശയൊക്കെ ആയിട്ട് പറഞ്ഞതായിരിക്കും മക്കളേ നിങ്ങൾ വല്ല മന്തിയോ അങ്ങനെ എന്തേലും കഴിച്ചായിരുന്നോ ഞാൻ അത് ഞങ്ങളെ കാൻ്റീനിൽ നിന്ന് തന്നെ കഴിച്ചതാണെന്ന് ഹലോ കാൻ്റീനിൽ ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കയിഞ്ഞാൽ അത് അത്ര നന്നായിട്ട് എപ്പോഴും ഫുഡ് പ്രിപ്പയർ ചെയ്യാറുള്ളൂ ഇല്ല ഇത് ഇത് ഇതുവരെ മറ്റ് കുട്ടികളാരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇപ്പം കാൻ്റീനിൽ നിന്നുള്ള ഫുഡ് ആണെങ്കിൽ പോലും കേരള കിച്ചൺ കേരള കിച്ചണിൽ നിന്നുള്ള ഫുഡ് കേരള കിച്ചണിൽ നിന്ന് തന്നെ ഉള്ള കോഴിയെ ഇങ്ങോട്ട് കൊണ്ടു വരാറുള്ളൂ സർക്കാരിൻ്റെ കോഴിയാ കോഴിക്ക് പത്ത് രൂപ കൂടുതലാണ് അല്ല മോനെ മോൻ വേറെ എവിടെ നിന്നേലും കഴിച്ചിട്ടുണ്ടാവും ഇവിടെ നിന്നുള്ളത് ഇവിടെ നിന്ന് മാത്രമല്ലല്ലോ മോൻ ഫുഡ് കഴിക്കുന്നത് മോനെ ഞാൻ ഈ കഴിഞ്ഞ ഒരു ആഴ്ച്ച ആയിട്ട് ഗോവയിലായിരുന്നു ഇന്നാണ് വന്നത് അത് കൊണ്ട് അവിടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മോനെ മോനെ അത് ചെറിയ ഒരു ശ്രദ്ധക്കുറവിൻ്റെയോ മറ്റോ ആയിരിക്കും ഞാൻ സ്റ്റാഫുകളോട് ഒന്ന് സംസാരിക്കട്ടെ സ്റ്റാഫിനെ മാറ്റാം മോൻ ഇത് കൂടുതൽ വിഷയം വിഷയമൊന്നും ആക്കണ്ട ഞാൻ ഓ മോനെ മോനെ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം വിളിക്കാം വിളിക്കാം മോനെ വിളിക്കാം ആ ശരി മോനെ ഞങ്ങൾ നോക്കാം ആ ആണോ ആ നോക്കാം നോക്കാമെന്ന് നോക്കാം ആ